ആ അതെ അതെ ആ അതെ

ആ ആ ഹാ ആ ആദ്യമേ നമ്മൾ പിന്നെ കോഴി കുഞ്ഞുങ്ങളെയാണാ അതോ കുറച്ചും കൂടി ഒരു അറുപത് ദിവസമൊക്കെ ആ അറുപത് ദിവസം പ്രായം ഉള്ള കുഞ്ഞുങ്ങളെ നമ്മളാദ്യം വളർത്താനായിട്ട് വാങ്ങിക്കേണ്ടത് അതിൽ ചെറിയ കോഴി കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പത്ത് കോഴീനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പിന്നെ കുറച്ച് വലിപ്പമുള്ളൊരു കൂട് ആദ്യമേ തന്നെ കൂട് സെറ്റായിരിക്കണം പിന്നെ നമ്മൾ കൊണ്ട് വന്ന് ഇട്ട് കഴിയുമ്പോൾ പിന്നെ അതിന് ഭക്ഷണം കാരണം പിന്നെ ചെറിയ ഇത് ചെറിയ കുഞ്ഞ് അറുപത് ദിവസമൊക്കെ ആവുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ അവർ അപ്പോൾ അവർക്ക് ഈ നമ്മൾ ആ ചെറിയ ചെറിയ രീതീലുള്ള ഈ ഗോതമ്പിങ്ങനെ പൊടി പൊടികൾ പൊടി പൊടിച്ച ഗോതമ്പുകൾ കിട്ടും നമുക്ക് കടകളീന്ന് അപ്പോൾ അത് ആദ്യമേ ഇട്ട് കൊടുക്കണം പിന്നെ അവർക്ക് കുപ്പികളിൽ വെള്ളം അത് നമ്മൾക്ക് പ്രത്യേക പാത്രം കിട്ടും അതിന് വെച്ച് കൊടുക്കാനായിട്ട് അത് നമ്മൾ പുറത്തുന്ന് വാങ്ങിച്ച് പിന്നെ തീറ്റയിട്ട് കൊടുക്കാനും പ്രത്യേക പാത്രം നമുക്ക് കിട്ടും അതും ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് കഴിയുമ്പോൾ അവർ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ അവരെ ഇങ്ങനെ ശ്രദ്ധിച്ച് പിന്നെ അതിന് പിന്നെ മരുന്ന് കൊടുക്കുന്ന സമയം ഉണ്ട് അപ്പോൾ അതിന് അത് നമ്മൾ അവർ നമ്മൾ പിന്നെ അത് നമ്മൾക്കൊരു ഈ ആ നമ്മൾ ഒരു ആദ്യമേ തന്നെ കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട ഒരു തുള്ളി മരുന്നുണ്ട് അപ്പോൾ അത് കൊടുത്ത് കഴിയും ആ അതെ അതെ ആ അതെ അതെ ആ അത് അത് നല്ലതാണ് അവർക്ക് നമ്മൾക്ക് മഞ്ഞൾ മഞ്ഞളിങ്ങനെ തിളപ്പിച്ച് വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ അവരത് കുടിച്ചോളും അപ്പോൾ അവർക്ക് പ്രതിരോധ ശക്തി കിട്ടും അവർക്ക് അപ്പോൾ അത് നമുക്ക് പനി പോലെ കോഴികൾക്ക് പനി അങ്ങനെയുള്ള അതൊന്നും വരത്തില്ല അത് കുടിച്ച് കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ പിന്നെ അവർക്ക് ആ തീറ്റ കൊടുക്കേണ്ട സമയങ്ങളുണ്ടല്ലേ എപ്പോഴും എപ്പോഴും കൊടുക്കേണ്ട കാര്യം ഇല്ല നമ്മൾ ഇന്ന് രാവിലെ ആ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് നോക്കണം അവർക്ക് തീറ്റി ഉണ്ടോ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ അതിനനുസരിച്ച് ഇല്ലായെങ്കിൽ നമുക്ക് വീണ്ടും അത് ഇട്ട് കൊടുത്ത് പിന്നെ അവരേൽ ആ അതുണ്ട് ആ കോഴിത്തീറ്റ ഇപ്പോൾ നമ്മൾ അത് ചെറിയ ചെറിയ കോഴികൾക്ക് കൊടുക്കുന്നുള്ള തീ ഇതുണ്ട് തീറ്റകളുണ്ട് പ്രത്യേകിച്ച് പിന്നെ അത് കൂടാണ്ട് പിന്നെ അവർ വളർന്ന് പിന്നെ മുട്ട മുട്ട തീറ്റിയുണ്ട് പുറത്ത് നമുക്ക് മുട്ട തീറ്റി അത് കിട്ടും അത് വാങ്ങിച്ച് നമുക്ക് കൊടുക്കാം പിന്നെ ആ കോഴിത്തീറ്റ പറഞ്ഞോ ആ പറഞ്ഞോ കോഴിത്തീറ്റ ഇപ്പോൾ നമുക്ക് ചെറിയ പ്രായത്തിന് കൊടുക്കേണ്ടത് കിട്ടുവേ ചെറിയ നമ്മൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ കൊടുക്കേണ്ട തീറ്റിയുണ്ട് പിന്നെ അവർക്ക് കുറച്ചും കൂടി വളർന്ന് കഴിയുമ്പോൾ കൊടുക്കാനുള്ള തീറ്റിയുണ്ട് പിന്നെ മുട്ട ഇടാൻ സമയത്ത് കൊടുക്കുന്ന തീറ്റിയുണ്ട് അങ്ങനെ പല ഇതിലുള്ള തീറ്റികളും നമുക്ക് കിട്ടും ആ അപ്പോൾ ശരി എന്നാൽ ഓക്കെ ഓക്കെ ആ ആ